ഹലോ അതെ മാം ആരാണ് വിളിക്കുന്നത് ആ എസ് മാം പറയൂ

ആ തീർച്ചയായിട്ടും പങ്കെടുക്കാട്ടോ

ഇരുപത്തെട്ടാംതീ പത്ത് മണിക്ക് അവൻ എങ്ങനെയുണ്ട് ആള് പഠിക്കാൻ മാത്സില് വീക്കാണോ ആ മാത്സ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പറയാറുണ്ട് മാത്സ് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണന്നൊക്കെ ഇടക്ക് പറയാറുണ്ട്

തീർച്ചയായിട്ടും ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാം

ങ് ക്ലാസിലൊക്കെ എങ്ങനെയുണ്ട് ആ നല്ല നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ആ രക്ഷിതാക്കൾ അവന് പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ എങ്ങനെയാണ് നല്ല റെസ്പെക്റ്റോടെയാണോ പെരുമാറുന്നത് ഇപ്പൊഴത്തെ മക്കളെ കുറിച്ചുള്ള പേടി അതല്ലേ ഓരോ ടീച്ചേഴ്സിനോട് ബഹുമാനം ഉണ്ടോ അതൊക്കെ അല്ലേ പണ്ടത്തെ പിള്ളേരെ പോലെ അല്ലല്ലോ എന്തായാലും വരാം വരാം